സ്ത്രീകളുടെ സമ സമത്വം രാഷ്ട്രീയത്തിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ പോയിട്ടുണ്ടെങ്കില് രാഷ്ട്രീയപ്രവർത്തനം നമ്മള് എഴുതാൻ പോയിട്ടുണ്ടെങ്കില് ഒരു രാഷ്ട്രീയപ്രവർത്തനമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കക്ഷികളുണ്ടാവും അല്ല എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മള് എഴുതാൻ പോയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നേരെ വിരൽ ചൂണ്ടി അത് വലിയ അപകടത്തിൽ കൊണ്ട് ഏ എത്തിക്കും കാരണം നമ്മളൊരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എഴുതുമ്പം മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ എഴുതുമ്പം എല്ലാ കാര്യങ്ങളും എഴുതും അത് മറ്റുള്ള രാഷ്ട്രീയപ്രവർത്തനം നമുക്ക് ഇഷ്ടപ്പെടില്ല കാരണം അങ്ങനെ ഓരോ കാര്യങ്ങളും മണിപ്പുരിൽ ഇപ്പം നടന്ന ഒരൂ ഉം പിന്നെ എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടായില്ലേ അതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിൽ കൊണ്ടിട്ടിട്ട് ലാസ്റ്റ് അത് കൊലപാതകത്തിൽ വരെ ഉം പോയി കലാശിക്കും എന്തെങ്കിലും എഴുതി ഇപ്പോൾ ഒരു ബോർഡും ഒട്ടിച്ച് രാഷ്ട്രീയപ്രവർത്തനം എഴുതിയത് മറ്റുള്ളവര് വായിക്കുമ്പോൾ അത് രാഷ്ട്രീയം അ ഇന്ന് അതു പോലെ എഴുതിയാൽ ആ എന്നാൽ ഇന്ന് ഇവനെ ശരി ആക്കിയിട്ടേ ഉള്ളു എന്ന് പറയുന്ന ഒരു എഴുത്തില് കൂടെത്തന്നെ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ആൾക്കാര് പുറപ്പെടും അതുകൊണ്ട് എഴുത്ത് അത്ര സുഖമായിട്ട് നമ്മള് രാഷ്ട്രീയപ്രവർത്തനം ആയി ബന്ധപ്പെട്ട് എഴുതാതെ ഇരിക്കുകയാണ് നമുക്ക് മെച്ചം